ഞാൻ സാധാരണ വസ്ത്രം കഴുകുന്നത് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് സോപ്പുപൊടി മുക്കി സോപ്പുപൊടി പതിപ്പിച്ച് തുണികൾ മുക്കി വച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വാഷ് ചെയ്യാറാണ് പതിവ് എല്ലാ ക്ലൈമറ്റിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നല്ല വെയിൽ വേനൽ കാലങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തുണികളൊക്കെ ഉണങ്ങിക്കിട്ടും പക്ഷെ മഴക്കാലമെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് മുക്കി വച്ചിട്ട് പിഴിഞ്ഞൊക്കെ ഇട്ടാലും ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മിഷൻ തന്നെയാണ് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഡ്രയറിലിട്ട് നമ്മൾ തുണി ഒരുവിധം ഉണക്കും അത് ഒരു നല്ല മഴക്കാലത്ത് മാത്രം ദാറ്റ്സ് ചെറിയ മഴയൊക്കെയാണെങ്കിൽ പിന്നെ നമ്മളത് ആ സാധാരണ രീതിയിൽത്തന്നെ അലക്കി വാർക്കയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഉണക്കാറ് അത്രയും മഴ നമ്മൾ നിർത്താതെ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് മാറി വരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾക്ക് മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അടുപ്പിച്ച് മഴയായിരിക്കും നമുക്ക് ഒരു തുള്ളി പോലും തോരാത്ത മഴ മഴയായിരിക്കും ഇപ്പം നമുക്ക് ക്ലൈമറ്റ് വ്യത്യാസം വന്നത് കൊണ്ടുതന്നെ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരഞ്ച് മണിക്ക് ശേഷമൊക്കെ മഴയൊക്കെ പെയ്യത്തുള്ളു രാവിലെ ഒക്കെ കുറച്ച് തെളിഞ്ഞൊക്കെ നിൽക്കും അഞ്ച് മണിക്ക് ശേഷം കുറച്ച് കാറ്റൊക്കെ അടിച്ച് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ മഴ പെയ്തു വരുന്നത് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴ പിന്നെ രാത്രിയായാലും തീരത്തില്ല രണ്ട് മൂന്നു ദിവസത്തേക്ക് നിർത്തിയങ്ങോട്ട് പെയ്യും അപ്പോൾ പിന്നെ നമുക്ക് തുണി ഉണക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തായാലും മിഷ്യനെ വാഷിംഗ് മിഷീനെ നമ്മൾ യൂസ് ചെയ്തെ പറ്റുള്ളു അപ്പം അതുകൊണ്ട് അങ്ങനെ മഴ നല്ല മഴക്കാലത്ത് വാഷിംഗ് മിഷീനിൽ നമ്മൾ തുണി അലക്കി ഡ്രയറിൽ ഉണക്കി എടുക്കാറാണ് പതിവ് അല്ലാതെ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ സാധാരണ മുക്കി വച്ച് വാഷ് ചെയ്തിടാറാണ് പതിവ് ഇത് സാധാരണ ഗതിയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് ചിലവാക്കുന്നത് വെള്ളം ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ലെങ്കിൽപ്പോലും നമ്മൾക്ക് വാഷിംഗ് മിഷീനിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും കുറച്ച് വെള്ളം കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും നമ്മൾ സാധാരണ കൈ കൊണ്ട് തിരുമ്മുന്നതിനേക്കാലും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ വരുന്നു അല്ലാത്ത രീതിയിൽ സാധാരണ നമ്മൾ വളരെ വെള്ളം കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളു